ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമങ്ങളിൽ ജലജസേ ജലസേചനത്തിനുള്ള സൗകര്യം വളരെ കുറവാണ് നല്ല മഴക്കാലത്ത് മാത്രമേ ജലസേചനത്തിനുള്ള സൗകര്യം ഉണ്ടാകാറുള്ളൂ ആ ജലം ഉപയോഗിച്ചാണ് ഇവിടെ അധികവും കൃഷി നടത്താറുള്ളത് പ്രധാനമായിട്ടുള്ള കൃഷി നടത്തുന്നത് നെൽക്കൃഷിയാണ് പക്ഷേ ജലക്ഷാമം കൊണ്ട് തന്നെ ഇപ്പം നെൽക്കൃഷി വർഷത്തിൽ ഒരു തവണ ആക്കി മാറ്റിയിട്ടുണ്ട് മുമ്പൊക്കെ വർഷത്തിൽ മൂന്ന് തവണ നടത്തിയിരുന്ന നെൽക്കൃഷി ഇപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമായി കുറച്ചിട്ടുണ്ട് അതും മുമ്പേ കൃഷി ചെയ്തതിൻ്റെ പത്തിലൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ആൾക്കാർ കൃഷി ചെയ്യുന്നു ഈ ജലസേചനം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയിടങ്ങളിളിപ്പോൾ എല്ലാവരും കവുങ്ങ് വച്ചു തെങ്ങ് വച്ചു പിന്നെ പാടം നികത്തി വീട് വച്ചു ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ജലസേചനമെന്ന് പറയുന്നത് മഴയുള്ള സമയത്ത് നന്നായിട്ട് പാ തോട്ടിലായാലും ചാലിലായാലും വെള്ളമൊലിച്ച് പോകുന്നുണ്ട് പക്ഷേ അത് പോയി ആ മഴയുള്ള സമയത്ത് ഒലിച്ച് പോകുന്നതല്ലാണ്ട് കെട്ടിക്കിടക്കുകയോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അത് ആ മഴക്കാലത്തുള്ള വെള്ളം നമുക്ക് ഒരു നല്ലൊരു ജലസേചന സ്രോതസ്സായി ഉപയോഗിക്കാൻ തന്നെ പറ്റുന്നില്ല ഈ മഴക്കാലത്തുള്ള ഈ ജലമുപയോഗിച്ച് നടത്തുന്ന കൃഷിയാണ് ഇവിടെ പ്രധാനമായിട്ട് നടത്തുന്നുള്ളത് അത് വർഷത്തിലൊരിക്കൽ പ്രാവശ്യം നടത്തുന്ന നെൽക്കൃഷി നല്ലൊരു മഴ വന്നാൽ ആ നെൽക്കൃഷിയെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി നശിക്കാറാണ് പതിവ് ജലം മഴ കുറഞ്ഞാൽ കുറച്ചും കൂടി നെൽക്കൃഷിയിൽ ആദായം ഉണ്ടാകും അല്ലെങ്കിൽ അത് മൊത്തം മുങ്ങി പോകും പിന്നെ ജല സ്രോതസ്സ് വേണ്ടി കുറച്ച് മഴക്കാലം കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾത്തന്നെ തടയണ ഇടും ആ തടയണ ഉപയോഗിച്ചാൽ തന്നെ ആള് ആ കുറച്ച് പ്രദേശത്ത് മാത്രം മാത്രമേ നമുക്ക് ആ വെള്ളമുപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ ബാക്കിയെല്ലാം വരണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ കൃഷി ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഈ മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ അതിൽ കളകളും മറ്റും എല്ലാം വന്ന് കൂടി നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടി ഇനി ഒരുപാട് കാശും ചിലവാക്കേണ്ടി വരുന്നു മുമ്പൊക്കെ കൊളക്ക പുഞ്ച എന്നീ വിളവുകൾ കൂടി മുമ്പേ എടുത്തിരുന്നതാണ് ഇപ്പോൾ പുഞ്ചക്കൃഷി തന്നെ എവിടേയും ഇവിടെ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ചെയ്യുന്നതല്ലാണ്ട് ആരും ഇപ്പം ആ പുഞ്ചക്കൃഷിയെന്ന് പറഞ്ഞ സ്ഥലം ഒരു കൃഷിയേ ചെയ്യാറില്ല പുഞ്ച കണ്ടമെന്ന് വച്ച് ഉള്ള ഒരു വയൽ മാത്രം അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടാകും ഇപ്പോഴങ്ങനത്തെ ഒന്നും ഇല്ല ഈ മേടമാസത്തിൽ വിത്തിട്ട് മേടമാസത്തിൽ വിത്തിട്ട് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അത് പറിച്ച് നട്ടിട്ടുണ്ടാക്കുന്ന കൃഷിയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ജലസ്രോതസ്സ് കൊണ്ട് ഉപയോഗിക്കുന്നത് അത് താണ അത് താഴ്ന്ന പ്രദേശം മാത്രമേ ഈ ജലം കിട്ടുന്നുള്ളൂ അത് എല്ലാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ജലം ഒഴുകി വരുന്നത് അനുസരിച്ചിട്ട് ആദ്യം ആർക്കാണോ ജലം കിട്ടുന്നത് അവരത് അവിടെ കെട്ടി വച്ച് അതിന് ഉപയോഗിക്കുന്നു പിന്നെ അതിനു താഴെ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് ഈ ജലം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അതും ആദ്യം കിട്ടിയാൽ തന്നെ മെയ് മാസമാകുമ്പോഴേക്കും ആ ജലം ഉപയോഗിക്കാൻ പറ്റാതെ വരും അപ്പോഴെല്ലാവരും ഈ വയലുകളിൽ തന്നെ ബോർ വെല്ലടിക്കുകയോ കിണർ കുഴിക്കുകയോ ചെയ്തിട്ടാണ് അപ്പോൾ ആ അപ്പോഴത്തെ കൃഷിയൊക്കെ മുമ്പോട്ട് കൊണ്ട് പോകുന്നത് ഇത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇപ്പോഴത്തെ ജലസേചന പദ്ധതി ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതിവേഗം നോക്കുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഒരു വർഷത്തിൻ്റെ മഴയുടെ തോതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തോതും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു പിന്ന തടയിണ ഇട്ടാൽ മാത്രമാണ് കുറച്ച് വെള്ളം കിട്ടുന്നു പിന്നെ നമുക്ക് കുളം കുളം ഉള്ളതും വളരെ കുറവാണ് അത് ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്കും ആ കുളത്തിലെ കൊളത്തിലെ വെള്ളം എല്ലാം വറ്റിപ്പോകുന്നു അതുപോലെ തന്നെ ഇനിയും തടയാം കണക്കിനുള്ളത് അതും നമുക്ക് മഴ മഴ പെയ്ത് രണ്ട് മൂന്നാല് മാസം ഉണ്ടാവും മഴക്കാലം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം ഉണ്ടാകുന്നതല്ലാണ്ട് പിന്നീട് അതിൻ്റെ സ്രോതസ്സ് നമുക്ക് കൃഷിക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ അവസാനമാകുമ്പോഴേക്കുള്ള വെള്ളം അതും ചളി വെള്ളമായിരിക്കും അതും പിന്നെ നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ജലസേചനമെന്ന് പറയുന്നത് തടയാൻ കണക്കത്തപ്പീ വെള്ളം വെള്ളം വണ്ടിയിൽ നിറഞ്ഞിട്ട് ജലം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് വണ്ടീല് കൊണ്ടുപോയിട്ട് വീടുകളിൽ എത്തിക്കുന്നുണ്ട് അത് കുറച്ച് ഒരു വലിയൊരു കിണർ വലിയൊരു കുളത്തിൽ ആ കുളത്തിൽ നിന്നാണ് ആ വെള്ളം പൈപ്പ് ചെയ്തെടുത്ത് മോട്ടറ് വച്ച് പൈപ്പ് ചെയ്തെടുത്ത് വണ്ടികളിൽ ടാങ്കിലാക്കീട്ട് കൊണ്ട് പോയിട്ട് വീടുകളിൽ പാത്രങ്ങളിലെല്ലാം ഒഴിച്ച് കൊടുക്കുന്നു മെയ് മാസമാകുമ്പോഴേക്കും അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഈ തടയിണ കെട്ടീട്ടുള്ള വെള്ളമൊന്നും നമുക്ക് എല്ലാർക്കും ഒരുപോലെ കിട്ടുന്നില്ല അത് ഒരു നല്ലൊരു ജലസ്രോതസ്സെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല അത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ നമുക്കത് കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു കിട്ടിയവർക്ക് കിട്ടി ഇല്ലാത്തവർക്ക് ഇല്ല അതുകൊണ്ട് ഇല്ലാത്തവർ കിട്ടിയവരോട് പ്രശ്നമുണ്ടാക്കുന്നു അത് കൃഷിയെ തന്നെ ബാധിക്കുന്നുണ്ട് മുമ്പൊക്കെ നെൽകൃഷി ചെയ്തിട്ട് നല്ലൊരു ഉപജീവനമാർഗ്ഗമായിട്ട് കരുതുന്നവർക്ക് ഇപ്പോൾ നമുക്കും ഇപ്പം മുതൽ വർഷത്തിൽ കാൽ ഭാഗത്തും സമയത്ത് കാൽ ഭാഗത്ത് വർഷത്തിൽ നാലിലൊരു ഭാഗം ഈ നെല്ല് കൊണ്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നമുക്ക് കടയിൽ അരി തന്നെ വാങ്ങീട്ട് കഴിക്കേണ്ട ഒരവസ്ഥയാണ് മുമ്പൊക്കെ ഈ ജലസേചന ഈ നല്ല വെള്ളമുണ്ടാകുന്ന സമയത്ത് ആ വെള്ളമുപയോഗിച്ച് കൃഷി ചെയ്ത് നെല്ല് ഉത്പാദിപ്പിച്ച് കൊണ്ട് വന്ന് അത് നമുക്ക് കടയിൽ പോയിട്ട് വേറൊരു വേറൊരു അരിയെ ആശ്രയിക്കാതെ ഇത് തന്നെ നമുക്ക് മില്ലിൽ കൊണ്ട് കൊണ്ട് പോയിട്ട് അതിനെ നെല്ല് അരിയാക്കി കൊണ്ട് വന്ന് അത് തന്നെ കഴിക്കാനല്ലേ നമുക്ക് പറ്റുന്നുണ്ടായുള്ളൂ ഇപ്പോൾ ഇത് ഒരു തവണ പോലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു തവണ പോലും ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നില്ല വെള്ളം ക്ഷാമം കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാത്തത് അത് വെള്ളം കിട്ടിയാൽ തന്നെ നമുക്ക് പണിക്കാരെ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടാണ് ഒരു ഒരുപാട് കൂലി കൊടുക്കണം ആ കൂലി കൊടുത്താൽ തന്നെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരും ഇല്ലെങ്കിൽ വരില്ല അതുകൊണ്ട് തന്നെ അവർ നമുക്ക് കൂലി കൊടുത്താലും അവരെ വീട്ടിലേക്കെത്തിക്കാൻ തന്നെ പ്രയാസമാണ് വണ്ടി വണ്ടീല് വച്ച് കൊണ്ട് വരണം അതിനും കൂലി വേണം അതും വണ്ടീൽ കേറ്റണമെങ്കിലും റോഡ് സൈഡിലേക്ക് എത്തിക്കണം അവിടുന്ന് വേണം വീട്ടിലേക്ക് കൊണ്ട് വരാൻ ഇപ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലവാകുന്നത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ എല്ലാവരും കൃഷിയെ തന്നെ നെൽകൃഷി അത് ആ നെൽകൃഷി തന്നെ ചെയ്യാൻ മടിക്കുന്നു പിന്നെ കവുങ്ങും തെങ്ങും വച്ചതുകൊണ്ട് തന്നെ അതിനും ബോർ വെല്ലടിക്കുന്നു ആ ബോർ വെല്ലടിച്ച് അവിടുത്തെ തെങ്ങിനും കവുങ്ങിനെല്ലാം വെള്ളം ഉപയോഗിക്കുന്നു ഏകദേശം ഭൂമിയിലെ എല്ലാ ജലസ്രോതസ്സുകളും ഉപയോഗിച്ച് വറ്റും വരെ ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞു അങ്ങനെ അടുത്ത തലമുറക്കായിട്ട് വെള്ളം അവിടെ അവശേഷിക്കുന്നില്ലെന്ന് തോന്നുന്നു ജലസ്രോതസ്സെന്ന് പറയാനിപ്പോൾ ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ജലം കുറവ് തന്നെയാണ് അത് നമ്മളൊരു വരണ്ട പ്രദേശമല്ലാത്ത കൊണ്ട് തന്നെ ഒരു എന്താ പറയുക തട്ട് തട്ടായൊരു പ്രദേശം ആയതുകൊണ്ട് തന്നെ താഴ്ന്നിരിക്കുന്ന പ്രദേശമുള്ളവർക്ക് ഈ ജലം സ്രോതസ്സായി കിട്ടുന്നുള്ളൂ മറ്റുള്ളവർക്കൊന്നും ഈ ജലം ഉപയോഗിക്കാൻ തന്നെ പറ്റുന്നില്ല